കേരളത്തിൽ കായികമത്സരങ്ങൾ അല്ലെങ്കിൽ പരിപാടികളെടുക്കുമ്പോൾ സാധാരണ എടുക്കുന്നൊരു ഒരു പ്രദേശമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഇപ്പം കേ ഇവിടെ കാര്യവട്ടത്ത് ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വന്നിട്ടുണ്ട് അപ്പം അവിടെയും വരാറുണ്ട് അപ്പം ക്രിക്കറ്റ് കളികളൊക്കെ നടക്കുമ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കൊണ്ടുവരാറ് പണ്ട് എന്റെയമ്മ പറയുഞ്ഞ് കേട്ടിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ടെന്ന് അപ്പം ആ സ്റ്റേഡിയം അത്രയൊരു പേര് കേട്ട പ്രശസ്തിയുള്ള ഒരു സ്റ്റേഡിയമാണ് അതുപോലെത്തന്നെ ഗ്രീൻഫീൽഡും ഇപ്പം അതിനുള്ള സൗഹര്യവും സൗകര്യവും കാര്യങ്ങളൊക്കെ ആ സ്റ്റേഡിയത്തിനുണ്ട് ഒരുപാട് ആൾക്കാരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ വലിയ തള്ളോ തിക്കോ തിരക്കോ ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോയി വരാൻ പറ്റുന്നൊരു വലിയൊരു സ്റ്റേഡിയമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡെന്ന് പറയുന്ന സ്റ്റേഡിയം അവിടൊരുപാട് ധാരാളം കളികളിപ്പം കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ പൊതുവെ കേരളത്തിലങ്ങനെ ഇത് കളികൾ കായികത്തിനത്ര വലിയൊരു പേര് കിട്ടിയിട്ടില്ല അത് കാരണം നമ്മുടെ പൊതുവെയുള്ള അത് രക്ഷിതാക്കളെല്ലാവരും പഠിത്തത്തിലോട്ടാണ് പിള്ളേരെ പറഞ്ഞയക്കാറ് അപ്പോൾ ആരുമങ്ങനെ കാലികളിലോ അങ്ങനെയൊന്നും പോവാറില്ല അത് വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഇതുപോലെ ഓരോ പരിപാടികളൊക്കെ നടത്തി ഇങ്ങനെ ഒരു കളിക്കാൻ തന്നെയൊരു ഇടം ഉണ്ടാക്കിക്കൊടുത്ത് അതിന് നല്ല നല്ല അത് ഫെസിലിറ്റീസ് ചെയ്തുകൊടുത്താൽ ഇനിയും പിള്ളാര് വന്ന് കളിക്കും ഒരുപാട് പേര് ഇതിലോട്ടിനി വരാൻ താൽപ്പര്യപ്പെടും അങ്ങനെ ഒരുപാട് വികസനം കായിക മേഖലയിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും അതിന് ഞാൻ പറയുന്നത് ഏറ്റവുമാദ്യം നമ്മൾ അതിനുവേണ്ടിയുള്ളൊരു സ്ഥലവും സ്ഥലം കണ്ടുപിടിക്കണം സാഹചര്യം വേണം അതിന് ഒത്ത സൗകര്യങ്ങളും ഫെസിലിറ്റീസും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ ഇനിയും ഇനിയും കുട്ടികൾ ഇതിലോട്ട് ഇതില് വന്നോളും വരും പിന്നെ ഇതിൻ്റെ വളർച്ചയിലും കേരളത്തിനും പ്രശസ്തി കിട്ടാൻ